ഹലോ ബോക്സ് സാർ കേൾക്കാവോ സാർ സാർ സാതീ ജിം വേണോ അതേ ഞാൻ അവിടോട്ട് പുതിയ ഒരു അഡ്മിഷൻ എടുക്കാനായിട്ട് വിളിച്ചതായിരുന്നു ആ അപ്പം സാറെ ഞാൻ അവിടെ എവിടത്തെ ഫീസും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ മൂന്ന് മാസം സാറേ ഞാൻ ഒരു ആറ് മാസത്തേക്ക് ഇതെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇപ്പം ഒരു ആറ് മാസം കൊണ്ട് മെമ്പർഷിപ് മൂവായിരം രൂപയും മൂവായിരത്തി ടോട്ടൽ എമൗണ്ട് ഓക്കെ സാറേ ഇതിൻ്റെ വർക്ക് പ്രവർത്തന സമയം ടൈം ഒന്ന് പറയാമോ പേർസണൽ ട്രേയ്നർ ആണോ അതോ കോമൺ ട്രേയ്നർ ആണോ കോമണായിരുന്നു കോമണായിട്ട് എത്രയാണ് സിം അവയ്ലബിളാണ് ആണ് അല്ലേ ഓക്കെ നൈറ്റോ നമുക്ക് ഇപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാനായിട്ട് ട്വൻറ്റി ഫോർ അവർ അല്ലേ ഓക്കെ ഞാൻ ഞാൻ മെയ്നായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറേ ചെസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ഒരു സിക്സ്പ്പാക്ക് ബോഡി മെയ്ൻ്റയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആ ഒര ആ ഈ പറഞ്ഞാൽ ക്ലിയർ ആയില്ല ആ അതേ അതേ അതേ അതേ നോർമ്മലീ ഉള്ള വേയ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി പ്രോട്ടീനോ പ്രോട്ടീൻ എടുക്കുന്നതിനോട് താല്പര്യമില്ല സാർ നമുക്ക് പ്രോട്ടീനെടുക്കതെ ഉള്ള വർക്കൗട്ട് മതിയോ ഓ ഓ ഓ ആ ഒവ്വാ ഓക്കെ ഓക്കെ യാ ആ ഓക്കെ അപ്പം ആ അപ്പം ഞാൻ എല്ലാമായിട്ട് കയറാനായിട്ട് സാറിനെ രണ്ടു ദിവസം കഴിയുമ്പോഴേക്ക് വിളിക്കാം എൻ്റെ കറൻറ്റ് ഡീറ്റേയ്ൽസ്സ് പറയാനായിട്ട് കേട്ടോ ഓക്കെ ഓക്കെ സാറേ ഓക്കെ ശരി